തൊഴിലില്ലായ്മയാണ് കാരണം തൊഴിലില്ലാതെ ഇരിക്കുമ്പോൾ ആളുകൾ ഓരോ ഓരോന്നിന് അടിമയാവും ക കള്ളിനും കഞ്ചാവിനും ഒക്കെ അടിമയാവും പെണ്ണ് പിടിക്കാനും അതിനും ഇതിനും ഒക്കെ അടിമ ആവും പിന്നെ വി തൊഴിലില്ലാത്ത അവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ തന്നെ ഭയങ്കര പണിയാണ് പിന്നെ തൊഴിലില്ലെങ്കിൽ പിന്നെ എന്ത് പഠിപ്പായിക്കോട്ടെ മക്കളെ കാര്യങ്ങളായിക്കോട്ടെ ഒന്നും പൈസ ഇല്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ലല്ലോ പിന്നെ വെ വ്യഭിചാരം അതും ഇതും ഇല്ലാത്ത ശീലങ്ങൾ ഒക്കെ തൊഴിലില്ലെങ്കിൽ ഓരോരാൾ ചെയ്ത് പോകും ആ സാഹചര്യം വ വന്ന് ഒത്ത് ചേരും തൊഴിലില്ലെങ്കിൽ എല്ലാം പോയൊരു അവസ്ഥയാണ്